കേരളത്തിൽ തന്നെ ഒരുപാട് ജി ഒരുപാട് ജില്ലയിൽ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള വിനോദ സഞ്ചാരികൾക്ക് വ്യത്യസ്ത രീതിയിൽ പരീക്ഷിക്കാവുന്ന ജനപ്രിയ പ്ര വിനോദ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ ട്രക്കിങ് ആയിക്കോട്ടെ ക്ലൈമ്പിങ് ആയിക്കോട്ടെ അതുപോലെ ജലകായിക വിനോദങ്ങൾ എന്ന് വെച്ചാലിപ്പം നമുക്ക് നമുക്ക് ചെറിയ ബോട്ടിംഗ് ഉണ്ട് അതുപോലെ പിന്നെ ഇപ്പം മത്സ്യ ബന്ധനത്തിന് പോകുന്നവരോട് കൂടി നമുക്ക് പോയിട്ട് അതിൻ്റെ അനുഭവം പങ്കിടാം അതുപോലെ ഇപ്പോൾ ഒരുപാട് ട്രക്കിങ് പോലെയുള്ള ചെ വലിയ മലനിരകളിൻ്റെ മുകളിലൊക്കെ പോയിട്ട് നമുക്കതിലെ ആ കാഴ്ചകൾ കാണാം അങ്ങനെ ഒത്തിരി വിനോദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് തന്നെ ഒരുപാടിപ്പോൾ വയനാട്ടിൽ തന്നെ വ്യത്യ വ്യത്യസ്ത തരത്തിലുള്ള ഇപ്പോൾ തൊള്ളായിരം കണ്ടി അതുപോലെ കുറുമ്പാല കോട്ട പിന്നെ കോഴിക്കോടായിക്കോട്ടെ ബീച്ച് ഏരിയയിൽ അല്ലെങ്കിൽ ചെമ്പാല സൈഡിലൊക്കെ നമുക്ക് മത്സ്യബന്ധനം കാണാനും അതുപോലെ ട്രക്കിങ്ങിനും ഒരുപാട് ഇപ്പോൾ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റും അതുപോലെ എറണാകുളം ജില്ലയിലൊക്കെ നമുക്ക് ഫോർട്ട് കൊച്ചി ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് ബോട്ടിങ്ങും ഒക്കെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് വിനോദ സഞ്ചാരികൾ അവിടെ ഓരോ സ്ഥലങ്ങളിൽ വരികയും ഇതുപോലെയുള്ള വിനോദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുമുണ്ട് ഇപ്പം പറമ്പിക്കുളം ദീപ് ക്യാമ്പിംഗ് ഉണ്ട് പിന്നെ സ്റ്റോർക്കലിങ്ങ് ഉണ്ട് പിന്നെ അഗാ അഗസ്ത്യാർകൂടം ഉണ്ട് അതുപോലെ സൂ സൂചിപ്പാറ ഇപ്പം വായനാട്ടിലുള്ള സൂചിപ്പാറ പിന്നെ കുറുമ്പാല കോട്ട അങ്ങനെയുള്ള ഒരുപാട് ട്രക്കിങ് ഏരിയകളുണ്ട് അവിടേക്കൊക്കെ പോയി വിനോദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനായിട്ട് കഴിയും